ഇപ്പോൾ ഞാൻ ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ട് പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കുട്ടുക്കാരൻ്റെ കൊച്ചിൻ്റെ ബർത്ത് ഡേക്ക് എനിക്കത് പാചകം ചെയ്യാൻ വേണ്ടി കിട്ടിയിരുന്നു അപ്പോൾ ഞാനത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുവെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ കുടുതലായിട്ടും യൂട്യൂബ് ചാനലുകൾ നോക്കിയിട്ടാണ് ഇങ്ങനത്തെ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് നക്ക് എനിക്ക് ഒരു വിശ്വാസം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പല രീതിയിലുള്ള സാധനങ്ങൾ നല്ലതായിരിക്കണം നല്ലതല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറിപ്പോകും ഇപ്പോൾ ഓരോ ഇപ്പോൾ നമുക്ക് പല തരത്തിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ അത് നല്ലതല്ലെങ്കിൽ നമുക്കിപ്പോൾ അത് ഡേറ്റ് കഴിഞ്ഞ് പോയതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം അതായത് നല്ല രീതിയിലുള്ള ഒരു സാധനം അല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക നല്ലൊരു ഫുഡ്ഡായിട്ട് മാറി മാറില്ല കാരണം ഭയങ്കര ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നുവെന്ന് വേണമെങ്കിൽ അവർ എല്ലാവരും പറഞ്ഞായിരുന്നു നല്ല ഒരു ഫുഡ്ഡായിരുന്നുവെന്ന് ഒക്കെയാണ് പറഞ്ഞത്